ഒരു ഏകദേശം കഴിഞ്ഞ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ചിക്കൻ കാന്താരി വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് സാധാരണരീതിയിൽ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നമുക്കറിയാം ചിക്കൻ ഒരുപാട് ചിക്കൻ മസാല അതുപോലുള്ള മുഴുവൻ മസാലകളും ഉപയോഗിച്ച് ആണ് ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത് എന്നാൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ ചിക്കൻ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ ഞാൻ ശ്രമം നടത്തുകയുണ്ടായി അതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാതിക്കുന്നത് ഇതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് കിലോ

ഏറ്റവും ചെറുതായി മുറിച്ചു കൊണ്ട് കടയിൽ നിന്നു വാങ്ങി ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അധികം മസാലകളോ മറ്റ് പൊടികളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ അന്നാ ചിക്കൻ കറി ഉണ്ടാക്കിയത് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ആ ചിക്കൻ കറി ഇഷ്ട്ടപെടുന്ന പ്പെടുകയുണ്ടായി രണ്ട് കിലോ ചിക്കൻ വാങ്ങി വീട്ടിലെത്തി ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കടയിൽനിന്നും മുറിച്ചു വാങ്ങിയത് അതിന് ശേഷം വീട്ടിലെത്തി രണ്ട് കിലോ ചിക്കൻ വൃത്തിയായി നല്ല വെള്ളത്തിൽ കഴുകി ഒരു പാനിലേക്ക് മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് വേണ്ടത്

രണ്ട് കിലോ ചിക്കൻ ഒരു ഇരുനൂറു ഗ്രാം വെളിച്ചെണ്ണ മാത്രമാണ് നമുക്ക് വേണ്ടത് ഒരു ഇരുനൂറ് ഗ്രാം വെളിച്ചെണ്ണ വെച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാവശ്യമായ ഒരു പാൻ അടുപ്പത്തുവെച്ച് അതിലേക്ക് ഈ ഇരുനൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഇരുനൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടയി വന്നതിനു ശേഷം നമ്മുടെ ചതച്ച ചെറിയ ഉള്ളിയുണ്ടല്ലോ അതൊരു ഇരുനൂറു ഗ്രാമോളം ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇരുനൂർ ഗ്രാം ച്ച് ചെറിയുള്ളി അഥവ ചുവന്നുള്ളി ഇട്ട് ഇളക്കി കൊടുക്കുക ആ ചെറിയുള്ളി ഇട്ട് ചെറിയുള്ളി ഒരു ചെറിയൊരു ബ്രൌൺ കളറായി മാറുന്ന സമയത്ത് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യനുദ്ദേശിക്കുന്നത് ചെയ്യുന്നത് വറ്റൽമുളക് അത് ചുവന്നമുളക് എന്നൊക്കെ പറയുന്ന ആ വറ്റൽമുളക് ചതച്ചതാണ് അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ചീ ചുവന്ന മുളക് വാങ്ങികൊണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലോട്ടിടാം അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലും മറ്റും ചതച്ച മുളക് വാങ്ങാൻ വേണ്ടി സാധിക്കും കിട്ടും അതുപയോഗിക്കാണ് കുറച്ചൂടെ എളുപ്പം ഒരു അൻപത് ഗ്രാമോളം ചതച്ച മുളക് ആ ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഇട്ട് ഇളക്കി അതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ചതച്ച മുളക് ചേർത്തു കൊടുത്ത് നന്നായി ഇളക്കുക

ചുവന്നുള്ളിയും ഈ ചതച്ച മുളകും കൂടി ഒരു റെഡ് കളറായി ചുവന്ന കളറായി ഒരു മൂന്ന് മിനിറ്റോളം ഒക്കെ ഇളക്കി കൊടുത്ത് അത് ചുവന്ന കളറായിട്ട് മാറും ആ ചുവന്ന കളർ വന്നതിനു ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കയാണ് ചെയ്യുക എന്നിട്ട് നല്ല വണ്ണം ഈ ചിക്കൻ ഈ വെളിച്ചെണ്ണയിലേക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുത്ത് വെള്ളം ഒന്നും നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല വെള്ളം നമ്മളീ കഴുകി വെച്ചിരുന്ന ചിക്കനിൽത്തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഈ ചിക്കൻ കറി വേകാൻ ആവശ്യമായ വെള്ളം ആ ചിക്കനിൽന്ന്ന്നെ ഇറങ്ങി വരും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ ചിക്കൻ അടച്ച് വെച്ച് വേവിക്കുക അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നോക്കുമ്പോൾ ഈ ചിക്കനിൽന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി അത്യാവശ്യത്തിന് വെള്ളം ഈ പാനിൽ അടിഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാം അതിൽ കിടന്ന് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഈ ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഈ എണ്ണയിൽ കിടന്ന് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ വേകുമ്പോൾ ഒരു ബ്രൌൺ കളറായി ചിക്കൻ മാറും അതുപോലെ ആ സമയത്ത് നമുക്കൊന്ന് ഈ ചിക്കൻ വെന്തോ എന്ന് നോക്കി കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു പാനിലേക്ക് വിളമ്പവുന്നതാണു അത്രയുള്ളു അത്ര എടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള ഒരു ചിക്കൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ടാവും സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ വാങ്ങി ഉണ്ടാക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി ഉപയോഗിക്കണം മുളക്പൊടി ഉപയോഗിക്കണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അത്തരത്തിലുള്ള നിരവധി സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഈ തരത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയപ്പോൾ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ ചിക്കൻ കറി നല്ല ഒരു രുചികരമായ ചിക്കനായിട്ട് തോന്നി പിന്നീട് ഞാൻ വീട്ടിൽ ചിക്കൻ വാങ്ങുന്ന അവസരങ്ങളെല്ലാം ഇത്തരത്തിലണ് ചിക്കൻ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഈയൊരു ചിക്കൻ കറി പരീക്ഷിച്ചുനോക്കാവുന്നാണ് കുട്ടികൾക്കും മറ്റ് മുതിർന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടപെടുന്നൊരു ചിക്കൻ കറി ആയിരിക്കും ഇത്തരത്തിൽ പാകം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിക്കൻ കറി എന്നുപറയുന്നത്